എന്നെ സംസ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ സംസാരിക്കുകയെന്നു പറഞ്ഞാൽ എനിക്ക് ഈസി ആണ് മറ്റു ഭാഷയേക്കാളും കൂടുതൽ എനിക്ക് വഴങ്ങുന്നത് ഈ മലയാളമാണ് കാരണം ഞാൻ ജനിച്ചു വളർന്നപ്പോൾത്തൊട്ട് മലയാളമല്ലേ കേൾക്കുന്നത് അപ്പം എനിക്ക് എളുപ്പം മലയാളമാണ് പക്ഷെ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോയെന്നു ചോദിച്ചാൽ എനിക്ക് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അക്ഷരത്തെറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളം മലയാളിയാണ് മലയാള ഭാഷ നന്നായിട്ടറിയാം നന്നായി സംസാരിയ്ക്കുന്നു പക്ഷേ ഇത്ര കാലത്തിനിടയ്ക്കും മലയാളം വ്യക്തമായിട്ടെഴുതുക എന്നുള്ളത് ടാസ്ക്ക് ആണു കേട്ടോ വളരെ ഒത്തിരി ഒത്തിരി തെറ്റുകളെനിക്കു വരാറുണ്ട് ഞാൻ പിന്നെ ശ്രമിക്കാറുണ്ട് മാറ്റാൻ പക്ഷെ എന്നാലും ഇംഗ്ലീഷ് എഴുതുമ്പോൾ എനിക്ക് അങ്ങനൊരു തെറ്റു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ മലയാളം എഴുതുമ്പോൾ എനിക്കു തെറ്റു വരുന്നുണ്ട് പക്ഷേ എനിക്ക് സംസാരിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എനിക്കിപ്പോൾ ഒരാളോടു സംസാരിക്കുമ്പോൾ ഞാൻ മലയാളിയാണ് മലയാളത്തിൽ സംസാരിയ്ക്കുന്നതു കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടു വന്നതായിട്ട് എനിക്കിതുവരെയായിട്ടും ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് അഭിമാനത്തോടെ മലയാളിയാണെന്നു പറയാം വായിയ്ക്കും ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വായിയ്ക്കും പക്ഷെ എഴുതുമ്പോൾ തെറ്റുകളൊത്തിരി ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചെറുപ്പത്തിൽത്തന്നെ അതു നമ്മൾ മാറ്റേണ്ടതായിരുന്നു പക്ഷേ അന്നു ശ്രദ്ധിയ്ക്കാത്തതു കൊണ്ടായിരിക്കും ഇന്ന് ഇത്രയും തെറ്റുകൾ വരുന്നത് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പത്താം ക്ലാസ് വരെയാണ് മലയാളം പഠിയ്ക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അതുപോലെത്തന്നെ ഡിഗ്രിയിലും അതുതന്നെ നമ്മൾ മലയാളം മാ നമ്മൾ മാതൃഭാഷയിൽ ഒന്നും അങ്ങനെ എഴുതാനും ഇതാക്കാനും ഒന്നും വരുന്നില്ല നമുക്ക് അപ്പം അതിൻറ്റേതായ ഒരു പോരായ്മയും നല്ലതു പോലെ ഉണ്ട് കാരണം മലയാളം അറിയില്ലായെന്നു പറഞ്ഞാൽ നാണക്കേടാണ് ജനിച്ച് ഇത്രയും വർഷമായി നിനക്ക് മലയാളം അറിയില്ലേ എഴുതാനറിയില്ലേ എന്നു ചോദിച്ചാൽ നാണക്കേടല്ലേ അപ്പം അതൊരു ഒരു സങ്കടം ഉണ്ട് പക്ഷെ എഴുതും ചെറിയ ചെറിയ തെറ്റുകളാണ് എന്നാലും അത് വലിയ ഒരു തെറ്റായിട്ടു തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം നമ്മുടെ കൂ നമ്മുടെ മാതൃഭാഷയായിട്ട് അതിനെ മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽപ്പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിയ്ക്കണെ ആ ഒരു ചിന്ത